ആ എനിക്ക് ഒരു ഫോൺ വേണം ആ എനിക്ക് ഫോണിനെപ്പറ്റി ഒന്നും അറിയില്ല ലേറ്റസ്റ്റ് ഫോണ് ഏ എത്ര രൂപയാകും ലേറ്റസ്റ്റായിട്ട് ആയിട്ട് ഉള്ള ഫോണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മകൻ ഇപ്പോൾ വിദേശത്ത് പോയിരിക്കുകയാണ് അവൻ്റെ അവനെ വിളിക്കുമ്പോൾ അവൻ്റെ ഫോട്ടോ എനിക്ക് കാണണം അതിന് വേണ്ടിയാണ് ഞാൻ ഇത് ഫോൺ എടുക്കുന്നത് പിന്നെ പിന്നെ വേറെ ഏ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഓരോന്നൊക്കെ കാണുമ്പോഴും ആളുകളെ ഒക്കെ അതുപോലൊക്കെ എനിക്കും എടുക്കണമെന്ന് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത്

ആ ആ എന്നാൽ അതു മതി ആ ആ ശരി അ ശരി ഞാൻ എടുത്തോളാം